എങ്ങനെയാണ് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പറയാൻ ഉണ്ടാവുക കാരണം പണ്ട് കാലത്ത് വെറും ടെലിഫോൺസ് മാത്രമുള്ള സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രോബ്ലം ആയിരുന്നു നമുക്ക് എപ്പോഴും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാൻ പറ്റില്ല ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വിളിച്ച് ഇൻഫോം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഡോക്ടറുമായിട്ട് സംസാരിക്കാനോ നമുക്ക് പറ്റില്ല അങ്ങനെ പല മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണുകൾ നമുക്ക് യൂസ് ഫുൾ ആണ് അതു മാത്രമല്ല ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം ദൂരെ ഉള്ള ആളുകളോട് എപ്പോഴും കണ്ടു സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ വീഡിയോ കോൾസ് എന്നു പറയുന്നത് അത് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു യൂസ് ആണ് കൂടാതെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പറ്റും അതുകൂടാതെ ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് മെയിന്റൈൻ ചെയ്തു പോകാനും പറ്റും പലരും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ സ്മാർട്ട് ഫോൺസുകളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും എന്താണ് നല്ല കാര്യങ്ങൾക്കു വേണ്ടി ഈ സ്മാർട്ട് ഫോണുകൾ ഹെല്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് പല മെമ്മറീസും പിക്ചർസ് ആയിട്ട് സ്റ്റോറ് ചെയ്തു വെക്കാൻ പറ്റും അതുപോലെ ആളുകളുമായിട്ടുള്ള ലോങ്ങ് ടൈം കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം ഹെൽപ്ഫുൾ ആണ്